പൂന്തോട്ട പരിപാലനം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പണിയാണ് ഞാൻ മുറ്റത്ത് ഞങ്ങളുടെ മുറ്റത്താണ് ഞാൻ പൂന്തോട്ടം ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ തോട്ടമൊന്നുമല്ല എന്നാലും ചെറിയ രീതിയിൽ ടെറസിലൊന്നും ഞാൻ ഒന്നും വെച്ചിട്ടില്ല ഞാൻ താഴെ വീടിൻ്റെ അരികിലൊരു സ്റ്റാൻഡ് പോലെയുണ്ടാക്കി അതിൽ പൂച്ചട്ടി വെച്ചിട്ടാണ് ചെടികളൊക്കെ നട്ടിരിക്കുന്നത് ഒന്ന് കുറെ പൂച്ചട്ടികളും കുറെ ചെടികളും എനിക്കുണ്ട് ഞാൻ എനിക്ക് സൗകര്യം പോലെ അതിനകത്ത് വെള്ളം ഒഴിക്കുകയും വളമിടും ഒക്കെ ചെയ്യും നല്ല രീതിയിൽ പൂക്കുകയും നല്ല പൂക്കളുമായിട്ട് നിക്കുവേം ചെയ്യുന്നുണ്ട് ഇപ്പം കുറെ റോസാപ്പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ പലതരത്തിലുള്ള ചെടികളുണ്ട് ഇവിടെ എനിക്ക് ചെടിയെന്ന് പറഞ്ഞാൽ എൻ്റെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ എവിടെ പോകുമ്പോഴും ഒരു ചെടി എവിടെയെങ്കിലും കണ്ടാൽ അത് മേടിച്ചോണ്ടുവന്ന് നമ്മുടെ മുറ്റത്ത് നടാറുണ്ട് പിന്നെ അതുപോലെ തന്നെ വീടിൻ്റെ പുറക്വശത്ത് വരെ ഞാൻ ചെടി നട്ടിട്ടുണ്ട് എനിക്ക് ചെടി എവിടെ നടുന്നതിനും ഇവിടെ കുറച്ച് ആവശ്യത്തിനുള്ള സ്ഥലമുണ്ട് അതുകൊണ്ടാണ് നാലുചുറ്റും ചെടികൾ വെച്ചിട്ടുണ്ട് മുൻവശത്ത് മാത്രമല്ല പുറകിലും രണ്ട് സൈഡിലും എല്ലാം ചെടിവെച്ചിട്ടുണ്ട്